നമ്മൾ ഓരോ പാട്ട് പാടുമ്പം നമുക്ക് ഓരോ ഇമോഷൻസ് ആയിരിക്കും അപ്പോൾ നമുക്കറിയാം ഓരോ പാട്ടിനും ഡിഫറെൻറ് ഡിഫറെൻറ് ആയിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കും നമ്മൾ ഒരു പ്രേമ ഗാനം പാടുന്നത് പോലെ ആയിരിക്കില്ല നമ്മൾ ഒരു ശോക ഗാനം പാടുന്നത് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ സംഗീതം പാടുന്നത് നമുക്ക് എപ്പോഴും നമ്മുടെ മുഖത്തും ആ ആ പാട്ടിലും ആ ഒരു ഇമോഷൻസ് പ്രതിഭലിച്ച് തന്നെ നിൽക്കുന്നുണ്ടാവും നമ്മൾ ഏതൊരു പാട്ട് പാടുമ്പോളും അതിൻ്റെ ഓരോ വരികളിൽ നിന്നുമുള്ള ഇമോഷൻസ് നമ്മുടെ മുഖത്ത് പ്രതിഭലിക്കുന്നത് പോലെ തന്നെ നമ്മുടെ സൗണ്ടിലും അത് പ്രതിഭലിക്കുന്നുണ്ട് ഏത് നമ്മൾ പാടുന്ന പാട്ടിൻ്റെ ആ ഒരു ലിറിക്സിൻ്റെ ഒരു ഇതനുസരിച്ചിരിക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും നം നമ്മൾ പാടുന്ന ആ പാട്ടിൻ്റെ ഇമോഷൻ ഏതാണോ ആ ഇമോഷനിലാണ് നമ്മുടെ സൗണ്ട് വരുക ആ ഇമോഷൻ ആണ് നമ്മുടെ ഫേസിൽ പ്രതിഭലിക്കുക ആ പാട്ടിൻ്റെ ആ ഇമോഷനെ ഡീപ്പ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഇമോഷൻ ഡീപ്പ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പാട്ട് പാടുമ്പോൾ ഉള്ള വികാരങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട് ഒ ഒരു പാട്ട് പാടുന്ന സമയത്ത് ഏത് രീതിയിലാണോ പാടുന്നത് ആ രീതിയിലായിരിക്കും മറ്റുള്ളവർക്ക് പ്രതിഭലിക്കുക ആ ഇമോഷൻസ് നമുക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പാട്ട് നമ്മൾ ഏത് രീതിയിലാണ് എഴുതിയത് എന്നുള്ളതല്ല നമ്മൾ പാടുന്ന സമയത്ത് നമ്മൾ ഉള്ള ഇമോഷൻസ് നമുക്കാ പാട്ടിന് വേണ്ട ഇമോഷൻസ് നമ്മുടെ വോയ്സിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് കൺവേ ചെയ്യുന്നത് മറ്റൊരു രീതിയിലായിരിക്കും അപ്പം നമ്മൾ പാടുന്നതിനനുസരിച്ചാണ് നമ്മുടെ ഓരോ ഇമോഷൻസ് കീപ്പ് ചെയ്യേണ്ടതും ആ ഏത് ഇമോഷനിലാണാ പാട്ട് പോകുന്നത് ആ ഇമോഷനിൽ വേണം പാടുന്ന നമ്മളും അത് പാടാൻ വേണ്ടിയിട്ടും നമ്മുടെ വികാരങ്ങളും നമ്മുടെ മുഖത്തുള്ള ഇമോഷൻസും എക്സ്പ്രഷൻസും ഒക്കെ അതിനുള്ളതായിരിക്കണം കാരണം എങ്കിൽ മാത്രമേ നമ്മുടെ സൗണ്ടിലും അത് പ്രതിഭലിക്കുളളൂ അപ്പം മറ്റുള്ളവർക്ക് പകർന്ന് നൽകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ആ വോയിസ് എങ്ങനെ എടുക്കുന്നു ആ ഇമോഷൻസ് എങ്ങനെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് വെച്ചായിരിക്കും മറ്റുള്ളവർക്ക് ആ പാട്ട് ആ രീതിയിൽ കൺവേ ചെയ്യും